ഞാൻ അടുത്തിടെ മേടിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എൻ്റെ ഈ ഫോൺ തന്നെയാണ് ഞാൻ മേടിച്ചത് സാംസങ്ങ് എഫ് തേർട്ടി ഫോർ എന്നുള്ളൊരു മോഡലാണ് ഇതൊരു വളരെ നല്ലൊരു ഫോണാണ് ഞാൻ ഈ ഫോണ് എടുക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്നു വച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേയാണ് വൺ ട്വൻ്റി ഹെഡ്സ് ഡിസ്പ്ലേ അതായത് നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഈ ഫോൺ നമുക്ക് തരുന്നത് ഈ പ്രൈസ് റേഞ്ച് നമുക്ക് ഈ ഡിസ്പ്ലേ വേറൊരു ഫോണിലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല പിന്നെ ഈ ഫോണിൽ പ്രധാനായി വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് അതായത് നമുക്ക് ഏത് സാഹചര്യത്തിൽ അതായത് വെട്ടം കൊറഞ്ഞ സാഹര്യത്തിൽ അതായത് രാത്രി അപ്പോഴൊക്കെ നമുക്ക് നമുക്ക് നല്ല വൃത്തിയോടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നു പിന്നെ ഇതിൻ്റെ ബാറ്ററിയെന്ന് വച്ചാൽ ആറായിരം എം എ എച്ച് ബാറ്ററി ആണ് നമുക്ക് എന്തൊക്കെ എങ്ങനൊക്കെ ചെയ്താലും രണ്ട് ദിവസം ഈ ബാറ്ററി നമുക്ക് നിൽക്കുന്നതായിരിക്കും അതായത് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണ് പിന്നെ സാംസങ്ങിൻ്റെ അറിയാമല്ലോ നമുക്ക് അഞ്ച് വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും വേണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഇതിൻ്റെ ഈ ഡിസൈനാണ് അതായത് മറ്റു ഫോണിലെ വച്ചു നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഫോൺ ആണ് ഇത് പിന്നെ ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് സ്കാനറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതായത് പുത്തൻ സംഭവങ്ങളെല്ലാം വരുന്നു പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്നാൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഗോറില്ല ഗോറില്ല ഫൈവ് ഗ്ലാസ് ഗ്ലാസുള്ളത് അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ താഴെ അറിയാണ്ട് പോയാൽ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടത്തില്ല പിന്നെ ഈ ഫോൺ പ്രധാനമായും മൂന്ന് കളറിലാണ് വരുന്നത് പച്ച കറുപ്പ് വയലറ്റ് എന്ന നിറങ്ങളിലാണ് ഈ ഫോൺ മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ അതിൽ നിന്ന് മേടിച്ചത് കറുപ്പാണ് പിന്നെ നമുക്ക് ഇതിൽ ഫൈവ് എൻ എം പ്രോസസ്സറാണ് വരുന്നത് അതായത് നമുക്ക് നല്ല രീതിയിൽ ഇതിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നു പിന്നെ ഇതിൻ്റെ ഇതിലെ വീഡിയോഗ്രാഫി ഒരു രക്ഷയില്ലാത്തതാണ് മറ്റു ഫോണുകളെ വച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും അതായത് നമ്മുടെ കയ്യൊക്കെ കുലുങ്ങുമ്പം ഇതിൽ ഓ ഐ ഒ എസ് എന്നുള്ളൊരു സംഭവുണ്ട് അപ്പോൾ അത് നമ്മുടെ കയ്യിലെ കുലുക്കം ഒക്കെ മായിച്ച് കുലുക്കം ഇല്ല എന്നുള്ള വൃത്തിക്കുള്ള വീഡിയോകൾ നമുക്ക് എടുത്തു തരുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തൊരു ഫോൺ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല